ആ പറഞ്ഞോളൂ ആരാണിത് അല്ല ചെങ്ങന്നൂർ വെണ്ടക്കാക്ഷരത്തിലല്ലേ ബോർഡ് ഫ്രണ്ടിൽ എഴുതിവെച്ചേക്കുന്നത് അത് വായിക്കാനറിയത്തില്ലേ കല്യാണം നടക്കുന്നത് ബസ്സിനകത്തല്ലല്ലോ ബോ ബോർഡ് നോക്കി ബസ്സേ കയറുന്നതല്ലേ നല്ലത് ചെങ്ങന്നൂർ വണ്ടിയാണെന്ന് എഴുതി ഫ്രണ്ട് ബോർഡിൽ എഴുതിവെച്ചിട്ടുണ്ട് ചെങ്ങന്നൂർ തിരുവല്ലാന്ന് എഴുതിയെക്കുന്ന പറ ആദ്യം ചെങ്ങന്നൂര്ന്നാ എഴുതിയെക്കുന്നത് തിരുവല്ല ഏറ്റവും അവസാനമാണ് എഴുതിയേക്കുന്നത് നോക്കീം കണ്ടും കയറേണ്ടതല്ലേ വണ്ടീൽ പറ്റി പറ്റിപ്പോയിട്ടിപ്പോൾ ഇപ്പോൾ ഞങ്ങളെ കുറ്റം പറഞ്ഞ് വല്ല കാര്യമുണ്ടോ വ്യക്തമായിട്ട് ഞാൻ പറയുമ്പോൾ വിളിച്ച് വിളിച്ച് പറഞ്ഞായിരുന്നു ചെങ്ങന്നൂർ വണ്ടി ചെങ്ങന്നൂർ വണ്ടീന്ന് വിളിച്ച് പറഞ്ഞു അത് കേട്ടും ബോർഡ് നോക്കാതെ കയറീട്ട് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ പൊന്നു ചേട്ടാ ആ ഫങ്ക്ഷൻ ആ ഫങ് ആ ആ ഫങ്ക്ഷനൊന്നും ബസ്സിലോട്ട് മാറ്റാനൊക്കത്തില്ലല്ലോ ബോർഡും നോക്കി കയറണം ആ ഇനി അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങി അടുത്ത ബസ്സും നോക്കി ഇരിക്കുക അതിനിപ്പോൾ ചൂടാവേണ്ട ആവശ്യമൊന്നുമില്ല ബോ ബോർഡും നോക്കി കയറണവായിരുന്നു ഇത് ചെങ്ങന്നൂർ റൂട്ടല്ല ഇത് ആറന്മുള കഴിഞ്ഞു അടുത്ത ബസ്സ് ടൈം ഇപ്പം പന്ത്രണ്ട് കാല് പന്ത്രണ്ട് മുക്കാലൊരു ബസ്സുണ്ട് തിരുവല്ലാ റൂട്ട് അതൊന്ന് നിങ്ങളവിടെ അവിടെ അന്വേഷിച്ചാൽ അറിയാൻ പറ്റും എത്ര വേറെത്ര ബസ്സുണ്ടെന്നുള്ളത് അല്ലാതറിയത്തില്ലേ ഇതൊക്കെ അറിയത്തില്ലെങ്കിൽ ഞാൻ ഇത്രേം പറഞ്ഞില്ലേ ബോർഡ് നോക്കി കയറാതെ നിങ്ങളിവിടെക്കിടന്ന് അലച്ചിട്ട് വല്ല കാര്യമുണ്ടോ മനുഷ്യ അടുത്ത ബസ്സ് പറഞ്ഞല്ലോ പന്ത്രണ്ട് പന്ത്രണ്ടരക്കാണടുത്ത ബസ്സ് ഇപ്പം ആറന്മുള കഴിഞ്ഞു അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങാൻ കയറി പോവാ അല്ല അല്ലാതിപ്പോൾ എന്ത് പറയാനാണ് ഇപ്പോൾ ഫങ്ക്ഷനെന്തായാലും ബസ്സിലോട്ട് മാറ്റാനൊക്കത്തില്ല കല്യാണമായാലും അടിയന്തരമായാലും ബസ്സിനകത്ത് മാറ്റാനൊക്കത്തില്ല വള്ളംകുളത്ത് പോണം എന്ന് വള്ളംകുളത്ത് പോണെങ്കിൽ ചെങ്ങന്നൂർ ബസ്സ് കയറിയിട്ട് കാര്യമെന്ത് തിരുവല്ല ബസ്സി നിങ്ങൾ കയറണമായിരുന്നു നിങ്ങൾ ബോർഡ് ഇപ്രാവശ്യം ഇത്രേ പ്രാവശ്യം വിളിച്ച് പറഞ്ഞു ചെങ്ങന്നൂർ വണ്ടി ചെങ്ങന്നൂർ വിളിച്ച് പറഞ്ഞു അത് കേട്ടല്ലേ കയറിയത് പറഞ്ഞ വണ്ടി കൂലി ഇരുപത്തിനാല് രൂപയാണ് ചില്ലറയായിട്ടില്ല ആ അ അതും പിടിച്ച് ചു ചുരുട്ടിവെച്ചോണ്ടിരുന്നോ നിങ്ങൾക്കിറങ്ങണമെങ്കിൽ അതിന് ആ ഇപ്പം അങ്ങനായി ആ ഇപ്പങ്ങനായി ഇപ്പങ്ങനായി സംസാരിക്കാനൊക്കത്തുള്ളൂ ബസ്സിൻറ്റെ സമയമിപ്പോൾ ബസ്സോടിക്കൊണ്ടിരിക്കുവാണ് ഇപ്പോൾ ഇതിനെടേക്കിടന്ന് സംസാരിച്ച് വല്ല കാര്യമുണ്ടോ ഏത് എ എൻ്റെ പൊന്ന് ചേട്ടാ ഇത് അ അബദ്ധം അബദ്ധം പറ്റിയതാണെങ്കിൽ നിങ്ങൾ ബോർഡ് നോക്കി കയറണായിരുന്നു ഇപ്പോൾ ഇപ്പോൾ ഓ ഓടാനായിട്ട് ബസ്സ് പകുതിയായി നിങ്ങൾക്ക് വേണ്ടി വണ്ടി തിരിച്ച് ഞങ്ങൾക്ക് പിന്നെ സ്റ്റാൻഡ് വിടാൻ പറ്റോ ആ നിങ്ങളടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങിക്കോ ആ നിർത്തിത്തരാം അടുത്ത സ്റ്റോപ്പ് വരും അര കിലോമീറ്ററിൽ അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങിക്കോ

ആ അടുത്ത ബസ്സിൽ കയറി പോവാം ഓക്കെ ശരിയാണല്ലോ അടുത്ത ബസ്സിൽ കയറി പോവുവാ അത്രേ ഉള്ളു ശരി ആ ഓ താങ്ക് യൂ